ഞാൻ കൂടുതൽ ഉത്തമമായി എനിക്ക് തോന്നിയത് ഇൻ്റർനെറ്റ് വഴിയുള്ള ബാങ്കിംഗ് സിസ്റ്റം ആണ് കാരണം ഇൻ്റർനെറ്റ് വഴി ആകുമ്പോൾ നമുക്ക് ബാങ്കുകളിൽ പോയി ക്യൂ നിന്ന് അവരെ കണ്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല എല്ലാം ഓൺലൈനിൽ വിരൽത്തുമ്പിൽ നമുക്ക് ലഭിക്കുന്നതാണ് എല്ലാ സർവീസുകളും നമുക്ക് വീട്ടിൽ ഇരുന്നു തന്നെ അനുഭവിക്കാൻ കഴിയും ബാങ്കുകളിൽ പോയി അവിടുത്തെ ഓഫീസർമാരോട് സംസാരിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും അവർ വീട്ടിലേക്ക് കൊണ്ടു വന്നു ചെയ്തു തരുന്നതാണ് പണമിടപാടുകളും കാര്യങ്ങളും എല്ലാം കൂടുതൽ സെക്യൂരിറ്റി ലഭിക്കുന്നതും ഓൺലൈൻ ബാങ്കുകളിൽ നിന്നാണ്